ചേട്ടാ എനിക്കിപ്പോൾ ഞാൻ പാലക്കാട്ടുനിന്നാണ് വിളിക്കുന്നത് എനിക്കിപ്പോൾ കുറച്ച് പേർക്കുള്ള ഫുഡ് ഐറ്റം വേണമായിരുന്നു ഒരു പത്ത് ഇരുന്നൂറ് പേർക്കുള്ളത് അപ്പോൾ അതിന് വേണ്ടീട്ട് വിളിച്ചതാണ് അപ്പോൾ സദ്യ ആണ് വേണ്ടത് എല്ലാ പത്ത് ഇരുപത്തിരണ്ട് ഐറ്റം കറികളും വേണം എല്ലാ ഐറ്റം അതിന് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തണം എനിക്ക് അതിലിപ്പോൾ പായസത്തിന് അധികം മധുരമൊന്നും വേണ്ട കുറച്ച് മധുരം മതി അതേപോലെ കറികളിലൊക്കെ ഉപ്പിടുമ്പോൾ സമ്പാർ രസം ഇതിലൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടാൽ മതി ആവശ്യത്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് കമ്മിയാക്കി ഇടണം കാരണം വയസ്സായ ആൾക്കാരൊക്കെയാണ് അവർക്കൊക്കെ പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് കമ്മിയാക്കി ഇട്ടാൽ മതി അതേപോലെ പഞ്ചസാര ഷുഗറ് പായസത്തില് ഷുഗറ് കമ്മിയാക്കണേ ഇങ്ങനെയുളള കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണേ അത് ഒന്ന് അയച്ച് തരാം ഇവിടെത്തന്നെ പാലക്കാട് കൽമണ്ഡപം ഭാഗത്തേക്ക് തന്നെയാണ് കൊണ്ടുവരേണ്ടത് നേരത്തേ ലൊക്കേഷൻ തന്ന അവിടേക്ക്